വസ്ത്രങ്ങൾ കഴുകാൻ ഞാൻ ഉപയോഗിക്കുന്നത് വാഷിംഗ് മിഷീൻ ആണ് വാഷിംഗ് മിഷീനിൽ അലക്കി കഴിഞ്ഞാൽ വൃത്തി ആവില്ല ബട്ട് നമുക്ക് അത് കഴുകി പെട്ടന്ന് തന്നെ നമുക്ക് വേറെ പണി ഒന്നും എടുക്കാണ്ട് കഴുകി എടുക്കാം കഴുകി എടുത്തു കഴിഞ്ഞാൽ അതിനകത്തു തന്നെ നമുക്ക് വെള്ളം കളയാനുള്ള ഓപ്ഷൻ ഉണ്ട് ഓപ്ഷൻ ചെയ്ത് സെലക്ട് ചെയ്തയിനുശേഷം നമ്മൾ എന്താ വേണ്ടത് ചെയ്തത് വച്ചാൽ അതിൽ ഡ്രയിൻ ചെയ്യുക അതായത് നമ്മൾക്ക് തന്നെ അതിനകത്ത് ക്ലീൻ ചെയ്ത് ഡ്രയിൻ ചെയ്യാം അത് ഡ്രയിൻ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടത് നേരെ അഴയിൽ കൊണ്ടുപോയി ഇടുകയാണ് ചെയ്യേണ്ടത് അപ്പോൾ തന്നെ പെട്ടന്ന് തന്നെ ഉണങ്ങി കിട്ടുന്നതാണ് അപ്പോൾ മഴക്കാലത്ത് നമ്മൾ എന്താണെന്നു വച്ചാൽ ചെയ്യുന്നത് ഇങ്ങനെ കഴുകി കഴിഞ്ഞാൽ നമ്മളെ വീടിൻ്റെ വരാന്തയിൽക്കൂടി ഇങ്ങനെ അഴയെന്നു പറഞ്ഞൊരു സംഭവമുണ്ട് അത് അതായത് എന്താ പറയുക കയർ വച്ചിട്ട് കെട്ടിയിട്ട് അതിനകത്തുകൊണ്ട് പോയി ഉണക്കാൻ ഇടുകയാണ് ചെയ്യാറ് അപ്പോൾ കാറ്റ് അടിച്ച് വേഗം ഉണങ്ങാനും നമുക്ക് പെട്ടന്ന് എളുപ്പമാണ് അതാണ് മഴക്കാലത്തും ചെയ്യാറ് വേനൽക്കാലത്ത് നേരെ മുറ്റത്ത് അഴ കെട്ടിയിട്ടുണ്ടാകും അതിനകത്ത് കൊണ്ടുപോയി ഇട്ടിട്ടാണ് ഉണക്കാറ് ഇപ്പം മഴക്കാലത്ത് ഇങ്ങനെ ആണ് ചെയ്യാറ് ഇതാണ് കൂടുതലായിട്ടും എളുപ്പം എന്ന് എനിക്ക് തോന്നുന്നു കാരണം ഇല്ലെങ്കിൽ ടെറസ്സിൻ്റെ മുകളിൽ മറ്റേ റൂഫ് ഒക്കെ ചെയിതിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മണ്ടയിൽ ഇടുന്നതായിരിക്കും കുറച്ചൂംകൂടി നല്ലത് ഇപ്പോൾ അങ്ങനെയും ചെയ്യാം